യുവ തലമുറയെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ നേരത്തത്തെ യുവ തലമുറകളെ കുറിച്ചുള്ള ആചാരങ്ങളൊന്നും ഇപ്പം ആരും പാലിക്കുന്നില്ല കർശനമായിട്ടൊന്നും പാലിക്കാറില്ല കാരണം പഴയ ആൾക്കാരെ പോലല്ലല്ലൊ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നേരത്തെ ഒക്കെ ആണെങ്കിൽ നമ്മുടെ യുവ തലമുറയ്ക്ക് മുന്നിലേക്കുള്ളവരാണെങ്കിൽ നമ്മൾ ഓണം വന്ന് കഴിഞ്ഞാൽ പത്ത് ദിവസം അത്തപ്പൂ ഇടും പത്ത് കളറിൽ ഉള്ള അത്തപ്പൂ പത്ത് ദിവസവും നമ്മൾ ഇടാറുണ്ട് പിന്നെ അത്തം ഇട്ടു കഴിഞ്ഞാൽ പത്ത് ദിവസത്തിന്റന്ന് പത്താം ദിവസം തിരുവോണത്തിന്റന്ന് ഞങ്ങൾ അട ഉണ്ടാക്കുന്നുണ്ട് അട ഉണ്ടാക്കി ഈ അത്തത്തിന്റെ പുറത്ത് കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ മീതെ ഞങ്ങൾ പത്തിനം പൂവും ഇടും പൂവിട്ടിട്ട് ചെറിയ കുട്ടികളെ കൊണ്ട് വന്ന് ഞങ്ങൾ അമ്പും വില്ലും ഉണ്ടാക്കി ആ അപ്പത്തിനെ അമ്പേയ്തെടുക്കും അതിന് മീതെ ഞങ്ങളൊരു മഞ്ഞ കൊടി വെച്ചിട്ടുണ്ടാവും ആ മഞ്ഞ കൊടി എടുത്ത് കു ആ ആരാണോ അമ്പ് ചെയ്തെടുക്കുന്നത് അവർക്ക് കൊടുക്കും പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊന്നും നടന്ന് വരാറില്ല കാരണം ഇന്ന് അവർ എങ്ങനെ പൂകൊണ്ട് തന്നെ അവർക്ക് അത്തം ഇടണം എന്ന് നിർബന്ധമില്ല ഉപ്പ് വാങ്ങിയ്ക്കും ഉപ്പ് വാങ്ങിച്ചു കൊണ്ടു വന്ന് അതിൽ കളറൊക്കെ ചേർത്ത് അവർ വലിയ പടം വരച്ച് ആ ഒരു ദിവസത്തെ അത്തമേ ഇന്നുള്ളു അന്നങ് പണ്ടത്തെ കാലത്ത് അങ്ങനെ മുൻതലമുറ എങ്ങനയെന്ന് പറഞ്ഞാൽ ഈ പത്ത് ദിവസം അവർ പൂവാണിടുന്നത് ഇന്നങ്ങനെ അല്ല പിന്നെ വിഷു വിഷുവിന് ഞങ്ങൾ നേരത്തയൊക്കെ ആണെങ്കിൽ നമ്മൾ പണ്ട് കാലത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഞങ്ങൾക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് ചക്ക വെള്ളരി മാങ്ങ പറങ്കി മാങ്ങ അങ്ങനെയൊക്കെ ഉള്ള നമ്മളൊരുപാട് സാധനങ്ങൾ നമ്മൾ പൂർത്തിച്ചക്ക ഇതെല്ലാം നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടി ഞങ്ങളതെല്ലാം കൊണ്ട് വെയ്ക്കാറുണ്ട് ഇന്നാണെങ്കിൽ നമുക്കതെല്ലാം കാശ് കൊടുത്ത് വാങ്ങണം പക്ഷേ പഴയ തലമുറ അല്ലല്ലോ ഇന്നത്തത് ഇന്ന് നമുക്ക് അതിനൊന്നുമുള്ള ഒരിതില്ല അതാണ് ഇന്നത്തെ കാലഘട്ടം പിന്നെ മൂല്യങ്ങളും മാറ്റത്തെക്കുറിച്ച് വന്ന മാറ്റം എന്തെന്ന് പറഞ്ഞാൽ മു പഴയ ആൾക്കാരല്ലല്ലൊ ഇന്നത്തെ തലമുറ ഇന്നത്തെ കുട്ടികളെ കുറിച്ച് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല അവരൊന്നും ഇതിനേക്കുറിച്ച് ഒന്നും ഒരു ചിന്തിക്കാറു പോലുമില്ല അവർക്ക് അതിനെക്കുറിച്ചുള്ള സമയവുമില്ല അതാണ് കാര്യം